ഇന്ത്യയുടെ സ്വതന്ത്ര്യസമരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്കിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്ത് പതിനഞ്ച് അർദ്ധരാത്രിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് പേരുടെ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് മഹത് വ്യക്തികൾ അവരുടെയെല്ലാം വലിയ പ്രയത്നങ്ങൾ കൊണ്ടു തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇതിലെടുത്ത് പറയേണ്ടതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രയത്നം ഹിംസയുടെ മാർഗ്ഗത്തിലായിരുന്ന ഇന്ത്യയെ അഹിംസയുടെ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി സ്വാതന്ത്ര്യം നല്കിയ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ഇതിൽ എനിക്ക് സ്വാതന്ത്ര്യസമരം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹം അതുപോലെ തന്നെ അതുപോലെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം ഇതെല്ലാമാണ് ഇന്ത്യയിലെ പ്രധാന സമരങ്ങളിലെ സ്വാതന്ത്ര്യത്തെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഉള്ള പല സമരങ്ങളിലും മുഖ്യകണ്ണികൾ